മൃഗ വളർത്തലിൽ നിന്ന് ഒരുപാട് ഉപ ഉൽപന്നങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് മൃഗങ്ങളെ വളർത്തി പാൽ പാലുൽപന്നങ്ങൾ പാലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ബിസിനസ്സാക്കാവുന്നതാണ് പിന്നെ മൃഗങ്ങളെ പശു പാലുൽപന്നങ്ങൾ അല്ലാതെ തന്നെ മുയൽ കോഴി താറാവ് ഇങ്ങനെയുള്ളതു കൊണ്ട് മീറ്റ് പ്രോഡക്റ്റ് മുട്ട ഇതെല്ലാം സെയിൽ ചെയ്യുകയും മാർക്കറ്റിംഗ് നടത്തി നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്നതാണ് പിന്നെ പശു വളർത്തൽ ആണെങ്കിൽ തന്നെ ഒരുപാട് പാലുൽപന്നങ്ങൾ അല്ലാതെ ചാണകം ഗോമൂത്രം അങ്ങനെ അത് ഒരു വിൽപ്പന ഉപ വിൽപന വിൽപ്പന വസ്തുക്കളാണ് പിന്നെ മീറ്റ് ആയിട്ട് കൊടുക്കുന്നവർക്ക് ആണെങ്കിൽ അങ്ങനെ അതിൽ നിന്ന് ഉപ ഉൽപന്നങ്ങൾ ഉണ്ടാക്കാം ഫ്രോസൺ ചെയ്തതും ഡ്രൈ ആക്കിയതുമൊക്കെയായിട്ടുള്ള മീറ്റ് കൊടുക്കാം പിന്നെ മുട്ട ഫുഡ് ആക്കി സപ്ലൈ ചെയ്യാൻ പറ്റും മുട്ട ഹോൾസെയിൽ ആയിട്ട് മുട്ടയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും പിന്നേ ഇപ്പം നമ്മുടെ കേരളത്തിൽ അത്ര പ്രാബല്യമല്ലെങ്കിൽ തന്നെ ഈ ചെമ്മരയാടുകളെയൊക്കെ വളർത്തുന്ന മറ്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാർ കമ്പിളി വസ്ത്രങ്ങൾക്കു വേണ്ടിയിട്ട് അവയുടെ രോമം അതൊരു സെയിലാണ് പിന്നെ അത് ഉണ്ടാക്കുന്നവർ ആണെങ്കിൽ അത് കമ്പിളിവസ്ത്രങ്ങളോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യത്തിലാണെങ്കിൽ പശു വളർത്തലാണ് മെയിനായിട്ട് അല്ലെങ്കിൽ കോഴി താറാവ് അല്ലെങ്കിൽ പോത്ത് ഇതൊക്കെയാണ് പോത്തിനെ ആണെങ്കിൽ ഇറച്ചി ആവശ്യങ്ങൾക്ക് പഴയ കാലത്താണെങ്കിൽ നമ്മുടെ ഉഴുതാനും അങ്ങനെയൊക്കെ പോത്തിനെയൊക്കെ ഉപയോഗിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ ആ സാഹചര്യം അല്ലാത്തത് കൊണ്ട് പോത്തിനെ മാംസ കച്ചവടത്തിനായിട്ടാണ് കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് അതൊക്കെ നമക്ക് ഉപ ഉത്പന്നങ്ങളായിട്ട് കൊടുക്കാവുന്ന വസ്തുക്കൾ പലതുണ്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് അപ്പം പുൽക്കൃഷി മുതൽ എല്ലാം ഇതായിട്ട് കണക്ടീവാണ് പല പല കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട് മൃഗങ്ങളെ വളർത്തുന്നതു വഴി ഒരുപാട് പേർക്ക് വലിയ ഫാമുകളൊക്കെയാണെങ്കിൽ പലർക്കും ജോലി കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് പ്യുവർ സാധനം നമുക്ക് ഴിക്കാൻ പറ്റും മറ്റുള്ളവർക്ക് ഗുണമേന്മയുള്ള നല്ല സാധനങ്ങൾ കൊടുക്കാൻ പറ്റും വിഷങ്ങളൊന്നും അടിക്കാത്ത നല്ല പാലും നല്ല മുട്ട നല്ല ഇറച്ചി ഇതൊക്ക കൊടുക്കാൻ പറ്റും അതൊക്കെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്നാൽ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത് തയാണ് അപ്പം അത് ഏറ്റവും നല്ലതായി രീതിൽ കൊടുക്കുമ്പം ഗുണമേന്മയോടെ കൊടുക്കുമ്പം ഡിമാൻഡ് കൂടും അപ്പം കൂടുതൽ ആളുകൾ അത് വാങ്ങാനും ഉപയോഗിക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഒള്ള പല പല ഗുണങ്ങളുണ്ട് പിന്നെ തൊഴിലായി വിട്ട് അത് നമുക്ക് ഒരു എൻ്റർടെയിൻമെൻ്റും കൂടെയാണ് അതിനോടൊക്ക താല്പര്യമുള്ളവർ ആയിരുക്കുമല്ലോ അതൊക്കെ ചെയ്യണത് അപ്പൊ അവർക്കതൊരു വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്